നമസ്കാരം വരൂ ആ അതെ ഓക്കെ വരൂ വരൂ ഏത് നാടൻ വേണോ അതോ എങ്ങനത്തെ തെങ്ങ് ആണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒന്നര കൊല്ലം രണ്ട് കൊല്ലം കൊണ്ട് തെങ്ങ് തൈ ആയിരിക്കില്ല ഒരു മൂന്ന് കൊല്ലം എങ്കിലും മിനിമം വേണം ആ ആ പെട്ടെന്ന് മൂന്ന് ഏക്കറിലേക്കോ ആ ഓക്കെ മൊത്തം തെങ്ങ് വയ്ക്കാനാണോ ആ ഓക്കെ നമ്മൾ മൂന്ന് ഏക്കറിലേക്ക് ആ അതാ ഞാൻ പറയാൻ വന്നത് മൂന്ന് ഏക്കറിലേക്ക് മൊത്തം തെങ്ങ് വെക്കുന്നതിന് പകരം അതിൽ തെങ്ങ് രണ്ട് തെങ്ങിൻ്റെ ഇടയിൽ ഒരു കവുങ്ങ് വരുന്നത് നന്നായിരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു തെങ്ങിന് എന്തെങ്കിലും ഇപ്പോൾ ഒരു മറ്റേ മറ്റേ ഇല വെച്ചു പൊട്ടലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് എല്ലാവടേക്കും പിടിക്കും ഈ സാധനം അടുപ്പിച്ച് ആണെങ്കിൽ അപ്പം ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അത് പട്ട അങ്ങനെ ഒന്നിന് പിടിച്ചാൽ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ഉള്ളതിനെ രക്ഷിക്കാൻ പറ്റും ഇപ്പോൾ നമ്മുടെ അവിടെ ടി ഇൻടു ടി ഉണ്ട് കാസർകോടൻ കുള്ളൻ ചാവക്കാട് കുള്ളൻ പിന്നെ എന്താണ് ചെന്തെങ്ങ് ഉണ്ട് നാടൻ തെങ്ങുകൾ ഉണ്ട് നാടൻ തെങ്ങ് മിനിമം അഞ്ച് കൊല്ലം ആണ് എടുക്കുന്നത് പക്ഷെ നല്ല ഹൈറ്റ് വരും നല്ല കായ് ഫലം ഉള്ളതാണ് മറ്റേത് മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കും ഒരു പത്ത് കൊല്ലം വരെ കായ്ച്ച് കൊണ്ട് ഇരിക്കും ആ അത് നമുക്ക് ഒരു നാൽപ്പത് വയസ്സ് വരെ ഒക്കെ നന്നായിട്ട് ആ ഉണ്ടാകും പക്ഷെ അഞ്ച് കൊല്ലം ആവുമെന്ന് മാത്രം അത് ആ ഓക്കെ ആ ആ നിങ്ങളത് വെക്കേണ്ട കാര്യങ്ങൾ ഒക്കെ അറിയുമോ നിങ്ങൾക്ക് ആ ആ ആ അപ്പം ഒരു അഞ്ച്ക്കഞ്ച് കുഴി എടുത്തിട്ട് അതിൽ അത്യാവശ്യം ചാണകവും അതുപോലെ വെണ്ണൂറും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് ദിവസം സെറ്റ് ചെയ്യാൻ ഇടണം അത് കഴിഞ്ഞിട്ട് കുറേ ഒരു ലെയർ മണ്ണ് ഇട്ടിട്ട് അത് കൊണ്ടു വന്നിട്ട് അത് ആ കുഴി ഒന്നും കൂടി മിക്സ് ആക്കി അതിൽ വേണം തെങ്ങിൻ തൈ വെയ്ക്കാൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും തെങ്ങിൻ തൈ വെച്ചിട്ട് നാല് ഭാഗത്തു നിന്നും ഒരു വടി കൊടുത്ത് തെങ്ങിനെ സ്ട്രൈറ്റ് ആയിട്ട് നിർത്തണം വളയാൻ പാടില്ല സ്ട്രൈറ്റ് ആയിട്ട് നിർത്തണം കറക്റ്റ് ആയിട്ട് എന്നിട്ട് കെട്ടി വെക്കണം ഓല ആ അടിക്കാത്ത രീതിയിൽ കെട്ടി വെക്കണം ഒരു നാലഞ്ച് ഒരു രണ്ട് മൂന്ന് ദിവസം അതെ രണ്ട് അല്ല അപ്പോൾ ഇത് ഒരാഴ്ച്ച രണ്ടാഴ്ച്ച കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ വേരും കാര്യങ്ങളൊക്കെ തെങ്ങിൻ്റെ വേരും കാര്യങ്ങളും പിടിച്ച് കഴിഞ്ഞാൽ അത് തഴച്ച് വളർന്നോളും പിന്നെ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഇരുപത് മുപ്പത് നാൽപ്പത് ലിറ്റർ വെള്ളം ഒരു തെങ്ങിന് വെച്ച് കൊടുക്കേണ്ടി വരും അത്യാവശ്യം കൃഷിയിൽ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ അടുത്ത് ആ അപ്പോൾ ആ ശരി ഓക്കെ നമുക്ക് ഇപ്പോൾ എത്ര ഒരു പത്ത് അറുപത് തെങ്ങ് ഇപ്പം നമുക്ക് ഇപ്പോൾ തരാൻ പറ്റും ബാക്കി രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ എവിടെയാണ് നിങ്ങൾ സ്ഥലം പറയുകയാണ് പറഞ്ഞാൽ നമ്മൾ അവിടെ എത്തിച്ചു തരാം ആ അപ്പോൾ ഏതിൽ ടി ഇൻടു ടീ ആ ആ ടി ഇൻടു ടി കുറച്ച് എടുക്കാം പിന്നെ അതുപോലെ നാടൻ തെങ്ങുകൾ ഒരു പത്ത് എണ്ണം വെച്ച് എടുക്കാം കാരണം അധികം ഈ മറ്റേ തെങ്ങിനെ കാട്ടിലും കൂടുതലായിട്ട് ഈ രോഗം വന്ന് കഴിഞ്ഞാൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ആ നാടൻ തെങ്ങ് കുറച്ച് നല്ലതാണ് അപ്പോൾ ഈ രണ്ട് ടി ഇൻടു ടീൻ്റെ ഇടയിലൊക്കെ കുറച്ച് നാടൻ വെക്കുന്നത് നല്ലതാണ് പിന്നെ ചെന്തെങ്ങും അത്യാവശ്യം നല്ല രീതിക്ക് കുഴപ്പം ഇല്ലാത്ത രീതിയിൽ തന്നെ ആണ് പക്ഷെ അതിൻ്റെ കുലയ്ക്ക് നല്ല ഡിമാൻഡ് ഉള്ളതാണ് മറ്റേത് പോലെ സമയം എടുക്കില്ല ഇതിൽ പെട്ടെന്ന് കുല ഉണ്ടാകും അത് എളനീരിനു തന്നെ അത്യാവശ്യം നല്ല സെയിൽ വരും കുലയ്ക്ക് നാലായിരം മൂവായിരത്തിൻ്റെ അടുത്ത് റേഞ്ച് വരുന്നുണ്ട് നല്ല ഒരു പത്ത് പതിനഞ്ചെണ്ണമൊക്കെ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേങ്ങക്ക് തന്നെ പത്തോ ഇരുപതുർപ്യ മുപ്പതുർപ്യ കിട്ടും അപ്പോൾ തന്നെ രണ്ടായിരം റുപ്യ ആയില്ലേ ഒരു കുലയിൽ കിട്ടും അതും മറ്റേത് പോലെ രണ്ട് മാസത്തിൽ അല്ല ഇത് ഒന്നര മാസത്തിൽ ആകുമ്പോഴേക്കും നല്ല കുല വരും പിന്നെ ചെന്ത് ആയത് കൊണ്ട് എളനീർ ആയത് കൊണ്ട് മൂക്കണ്ട സമയം നോക്കണ്ട ആവശ്യമില്ല കറക്റ്റ് ആയിട്ട് അവർ വെക്കൂലേ അവർ ഇത് കൊടുക്കണം പറഞ്ഞാൽ അവർ വന്ന് കറക്റ്റ് ആയിട്ട് വെട്ടി പോകും നമുക്ക് പൈസ ലാഭവുമാണ് അപ്പം നിങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ശ്രദ്ധിച്ചോളൂ അത് ആ വേണേ നമുക്ക് നമുക്ക് അത്യാവശ്യം ഉണ്ട് ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഏതാ വെച്ചാൽ നമ്മൾ അത് എത്തിച്ചു തരാം ഇപ്പം ഒരു അറുപത് ടി ഇൻടു ടി അത് എടുത്തോളൂ പിന്നെ ഒരു നാടൻ തെങ്ങ് ഒരു പതിനഞ്ച് എണ്ണം ഇപ്പോൾ കൊണ്ടു പോയിക്കോളൂ അതുപോലെ ഇപ്പം നമ്മൾ ചെന്തെങ്ങ് വേണമെങ്കിൽ ഒരു പത്ത് എണ്ണം വേണമെങ്കിൽ നിങ്ങൾ കൊണ്ടു പോയാൽ മതി നമുക്ക് നിർബന്ധം ഒന്നും ഇല്ല വേണമെങ്കിൽ പത്തോ പതിനഞ്ചോ എണ്ണം അതും കൊണ്ടു പോക്കോളൂ അപ്പോൾ എല്ലാം കൂടി ഒരു നൂറ് എണ്ണം ആകുമ്പോൾ ആ ശരി അപ്പോൾ ഇപ്പോൾ ഒരു എഴുപത്തഞ്ച് എണ്ണം കൊണ്ടു പോയിക്കോളീൻ ബാക്കി എത്രയാണ് വേണ്ടേച്ചാൽ നോക്കിയിട്ട് നിങ്ങൾ സ്ഥലം നോക്കിയിട്ട് വിളിച്ച് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ദിവസത്തിനുള്ളിൽ എത്തിച്ചു തരാം

വളം ആ ഓക്കെ നമ്മൾ ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് വളം ഉണ്ടാക്കി മിക്സ് ചെയ്തിട്ട് ഒക്കെ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ അത്യാവശ്യം നല്ല കായ്ഫലം കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് പുറത്തു നിന്ന് ഉള്ള നല്ല അതായത് കെമിക്കൽസ് അല്ല നമ്മളുടെ ജൈവവളം ആണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് പക്ഷെ യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ തെങ്ങിന് അതുതന്നെ കറക്റ്റ് റെഗുലർ ആയിട്ട് കൊടുക്കേണ്ടി വരും മാസത്തിൽ ആറ് മാസത്തേക്ക് ഒരിക്കൽ വളം ഇടേണ്ടി വരും

ആ ഓക്കെ അപ്പോൾ നിങ്ങൾ എന്നാൽ അവിടെ പോയിട്ട് അക്കൗണ്ട് വേണ്ട നമ്മൾ അവിടെ പോയിട്ട് അക്കൗണ്ട്സിലെ സാധനം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അഡ്രസ്സും അവിടെ എഴുതി കൊടുത്താൽ മതി നമ്മൾ വൈകുന്നേരത്തിനുള്ളിൽ അവിടെ എത്തിച്ചേരാം അല്ല പേയ്മെൻറ്റ് ചെയ്തിട്ട് പോയാൽ മതി അഡ്വാൻസ് അല്ല മൊത്തം ഇന്നത്തേക്കുള്ള ഇന്ന് ഫുള്ളല്ല ഇന്ന് എത്ര എടുക്കുന്നു അതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്താൽ മതി ഇന്ന് എഴുപത്തഞ്ച് അല്ലേ അപ്പോൾ അവിടെ പറഞ്ഞ് കഴിഞ്ഞാൽ അവർ അതിൻ്റെ പൈസ പറയും അതുപോലെ വളത്തിൻ്റെ പൈസയും പറയും അതുകൊണ്ട് ഇന്നത്തെ പേയ്മെൻറ്റ് അടച്ചാൽ മതി മറ്റന്നാൾ ഞങ്ങൾ അത് കൊണ്ട് വരുമ്പോൾ എത്ര പോയിട്ട് നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ എത്ര തെങ്ങാണെന്ന് വെച്ചാൽ അവിടെ എത്തിച്ചു തരാം അത് കഴിഞ്ഞിട്ട് പൈസ തന്നാൽ മതി ഓക്കെ ശരി ശരി